ആ എന്താ ഇത് ചേട്ടാ കാണാറേ ഇല്ലല്ലോ

അതേയാ എനിക്ക് ഇതിൻ്റെ മുകളിലൊരു റൂമെടുക്കണമായിരുന്നു അതെ എന്താണ് എന്തു വില എന്തു വരുമോ എന്താണോ അല്ലേ എത്ര പൈസ ഷീറ്റ് അല്ല വാർക്കാമെന്നുള്ളതിലാണ് വിചാരിക്കുന്നത് ഏതാണ് പിന്നെ ചെങ്കല്ലാണോ ചെങ്കല്ലാവുമ്പോൾ എത്രവരും വെട്ടുകല്ലാവുമ്പോൾ എത്രവരും എങ്ങനെയെന്ന് അതെ എവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുക അതെ എന്നാൽപ്പിന്നെ ഹോളോ ബ്രിക്സ് എടുക്കാം അതാവുമ്പോൾ പിന്നെ സിമെന്റ് സിമെന്റൊക്കെ എത്ര വരും സിമെന്റൊക്കെ എത്ര വരുമോ ആവോ അല്ലെ എത്ര ചാക്ക് വരുമോ ആവോ

അതിനനുസരിച്ച് മണലും വേണ്ടിവരും ഇപ്പോൾ എല്ലാംകൂടി ഇപ്പോൾ എത്രയാണ് നിങ്ങളുടെ കണക്കെത്രയാണ് ഒരു രണ്ടു റൂമെടുക്കണം

അപ്പോൾ എല്ലാംകൂടി നിങ്ങൾ തന്നെ വന്നിട്ട് ചെയ്തു തരണം പക്ഷെ എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ടാവും

എത്രയാ എത്രയാ നീളവും വീതിയും ഒക്കെ അത് ഒത്തിരി വലിപ്പമുള്ള റൂമാണ് പന്ത്രണ്ടുക്കു പന്ത്രണ്ടോക്കേ അല്ലെങ്കിൽ പത്തുക്കു പത്തുകാ ആയാലും കൊഴപ്പമില്ല പന്ത്രണ്ടുക്ക് പന്ത്രണ്ട് ആയാലും കൊഴപ്പമില്ല ഇത്തിരി വലിയ റൂമായിട്ട് എടുക്കാമെന്നു പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ താഴെത്തുള്ള റൂമിൽ ഉം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഇവിടെ ഇവിടെയുണ്ടല്ലോ താഴത്തുള്ളതിനനുസരിച്ച് ഇത്തിരി വലിപ്പത്തിൽത്തന്നെ മുകളിലും എടുത്തു കഴിഞ്ഞാലല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടു പോയിട്ട് ഇടാനും അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി വലിയ റൂമായിട്ടെടുക്കാം എന്നു വിചാരിക്കുന്നത്

അപ്പം നല്ല വലിപ്പമൊക്കെ കിട്ടുമല്ലോ അല്ലെ അതു നല്ല

ഉം അല്ല പിന്നെ ചെറുതായിട്ട് എടുക്കുന്നതിനെക്കാളും ഏതായാലും നമ്മൾ ചെയ്യണം അപ്പോൾ ഇത്തിരി വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നേക്കും ഇടക്കിടയ്ക്ക് മാറ്റാനും എടുക്കാനും ഒന്നും പറ്റില്ലല്ലോ ഉം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി വലുതാക്കിയിട്ട് റൂമെടുക്കാം എന്നു വിചാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ചോദിക്കട്ടെ ഏട്ടൻ്റെയൊപ്പം ചോദിക്കട്ടെ അപ്പം മൂന്നരലക്ഷം ഉറുപ്പികയെന്നു പറയുന്നതല്ലെ മണലൊക്കെ എവിടെ നിന്നെടുക്കും

വീട്ടിൽ കൊണ്ടുവന്നു തരുമല്ലോ അല്ലേ ഓ കല്ലും അതേപോലെ അവിടെ നിന്ന് എവിടെയാണ് അറിയുന്നിടത്തു നിന്ന് എടുത്തിട്ട് അവർ റൂമിൽ കൊണ്ടുവന്നു തരുമല്ലോ അല്ലെ ഓ ശരി അപ്പം എന്നാൽ ഞാൻ നോക്കാം ഞാൻ പൈസയും കൂടിയൊന്നു റെഡിയാക്കട്ടെ ഉം അമ്പതിനായിരം ഉറുപ്പിക അല്ലെ

കുറേശ്ശേ കുറേശ്ശെയായിട്ട് തന്നാൽ മതി ഉം ആദ്യം ആദ്യം അമ്പതിനായിരം ഉറുപ്പിക അതിനിപ്പോൾ ഞങ്ങൾക്കാദ്യം ഇപ്പോൾ ലോൺ ലോണൊക്കെ എഴുതിയിട്ട് വേണം പൈസ റെഡിയാക്കണമെങ്കിൽ കുറച്ചൊക്കെയേ കയ്യിലുള്ളൂ ആദ്യം ആ കുറച്ചു കയ്യിലുണ്ട് പക്ഷെ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ബാക്കിയിള്ളത് ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ പിരിച്ചു ഉണ്ടാക്കിയിട്ടൊക്കെ വേണം ഓ കുറേ അന്ന് പൈസ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെയൊന്നും കണ്ടതേയില്ല ഞാൻ കുറെ വിളിച്ചു അപ്പോൾ ഫോണാണെന്നു വച്ചാൽ സ്വിച്ച് ഓഫെന്നോ പരിധിക്കു പുറത്തെന്നൊക്കെ പറയുന്നു വിളിച്ചപ്പോൾ കിട്ടിയതും ഇല്ല ഇപ്പോൾ ഏട്ടനാണെന്നു വച്ചാൽ ഉം ഇപ്പോൾ ഏട്ടനാണെന്നു വച്ചാൽ ഇപ്പോൾ പുറത്ത് പോവുകയും ചെയ്തു അപ്പം ഞാൻ എന്റടുത്ത് വിളിച്ചു ചോദിക്കുകയാണ് എത്ര രൂപ വരും എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദി ക്കുകയാണ് എന്നിട്ട് എന്നാൽ പണി തുടങ്ങ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ആ അടുത്താഴ്ച അല്ലെ ഉം ഞാൻ എന്തായാലും ബാങ്കിലൊന്നു പോട്ടെ ബാങ്കിൽ പോയിട്ട് തിങ്കളാഴ്ച എങ്ങാനും ബാങ്കിപ്പോയിട്ട് ഉം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആ ഞാൻ ബാങ്കിൽ പോയി വന്നിട്ട് വിളിക്കാം അപ്പോൾ വന്നാൽമതി അപ്പോൾ ഒന്നു വേഗം വന്നിട്ട് ചെയ്തുതരണം വൈകിക്കരുത് ആ തിങ്കളാഴ്ച കല്ലിറക്കാൻ പറഞ്ഞോളൂ അപ്പോഴേക്കും ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും ബാങ്കിൽ പോയി വന്നിട്ട് പൈസയും എടുത്തു തരാം